ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലം എടുത്ത് പറയാൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കഴിയില്ല കാരണം ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും ഓരോ ഏരിയയിലും ഓരോ സ്ഥലത്തിനതിൻറേതായ പ്രത്യേകതകൾ ഉണ്ട് ഇപ്പം കേരളത്തിൽ ആണെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ പ്രകൃതി പിന്നെ പ്രകൃതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലം കേരളത്തിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ കേരളം വിട്ട് തമിഴ്നാട് പോയാൽ അവിടെയും ക്ഷേത്രങ്ങൾ നല്ല നിർമ്മിതിയുടെ വെറൈറ്റി വെറൈറ്റി കാഴ്ചകൾ നമുക്ക് തമിഴ്നാടിൽ നിന്ന് കിട്ടും അങ്ങനെ ഓരോ സംസ്ഥാനത്തും നമ്മൾ പോയിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിശാലമാണ് ഇന്ത്യയിലെ ഒരാൾക്കും ഒരു പർട്ടിക്കുലർ പ്ലേസ് ചൂസ് ചെയ്യുക എന്നുള്ളത് റിസ്കി ആണ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പരന്ന് കിടക്കുന്ന ഈ ഭൂവിസ്തൃതിയിൽ ഒരുപാടൊരുപാടൊരുപാട് വൈവിധ്യമുള്ളതായ കാര്യങ്ങൾ കാണാനുണ്ട് അനുഭവിക്കാനുണ്ട് അറിയാനുണ്ട് മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലുള്ള നിർമ്മിതികൾ മുതൽ പഴയ സംസ്കാരങ്ങൾ വരെ നിലകൊള്ളുന്ന ഒരു സെറ്റപ്പ് ആണ് ഇന്ത്യ എന്നുള്ളത് അപ്പം നമുക്ക് ഇന്ത്യയിലെ ഒരു പർട്ടിക്കുലർ പ്ലേസ് എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനുള്ള ഒരു സ്ഥലങ്ങൾ പെട്ട തീർച്ചയായിട്ടും ആഗ്ര താജ് മഹൽ പിന്നെ കുത്തബ് മിനാർ ചെങ്കോട്ട അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയും അതൊക്കെ വിട്ട് കഴിഞ്ഞ് ജമ്മു കാശ്മീർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഹിമാലയം പർവ്വത നിരകൾ അവിടെ അനുഭവിക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതി എല്ലാമുണ്ട് നമുക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സ്ഥലം ചൂസ് ചെയ്യുക എന്നുള്ളത് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിൽ നിന്ന് കേര ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ പ്രദേശമാണ് കേരളം എന്നുള്ളത് കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണ്ട് തീർക്കാനും അനുഭവിച്ച് തീർക്കാനും ഉണ്ട് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയേണ്ടല്ലോ ഓരോ സംസ്ഥാനത്ത് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴും അവിടുത്തെ ഭാഷകൾ ആവട്ടെ സംസ്കാരം ആവട്ടെ ജനങ്ങളുടെ ജീവിത ശൈലിയാവട്ടെ എല്ലാം ഓരോന്നോരോന്ന് ഡിപ്പൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഡിഫറൻസ് ആണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു പ്രത്യേക സ്ഥലം എന്നുള്ളത് എനിക്ക് എടുത്ത് പറയാൻ കഴിയില്ല പക്ഷേ യാത്ര ചെയ്യുക എന്നുള്ളതും യാത്ര ഇഷ്ടപ്പെടുന്നൊരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നുള്ളത് വളരെ വിശാലമായി കിടക്കുന്ന ഒരു ലോകമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്